ഞാൻ വൺ പ്ലസ് ഫോണാണ് യൂസ് ചെയ്യുന്നത് ആദ്യം എടുത്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വൺ വീക്കിനുള്ളിൽ ഭയങ്കരമായിട്ട് ഹാങ്ങും കാര്യങ്ങളൊക്കെ ആകുന്നു അതുപോലെത്തന്നെ ചാർജ്ജ് ചെയ്യാൻ ഇട്ടാൽത്തന്നെ ചാർജ്ജ് മെല്ലെയാണ് കയറത്തുള്ളൂ അതുപോലെത്തന്നെ ഫോണ് എടുക്കുമ്പോൾത്തന്നെ പെട്ടന്ന് ചാർജ്ജ് ഇറങ്ങിപ്പോവും കാര്യങ്ങളൊക്കെ ആണ് കോള് ചെയ്യുമ്പോഴൊക്കെത്തന്നെ ആണെങ്കിൾ ഭയങ്കര നോയിസും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും അത്ര നല്ലതും ഒന്നും അല്ല ഭയങ്കര ഹാങ്ങും പ്രശ്നങ്ങളും ഒക്കെ ആണ് നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾത്തന്നെ അത് ഭയങ്കര സ്ലോ ആയിട്ടും അതങ്ങനെ പെട്ടന്ന് ഡൗൺലോഡ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ആവുന്നില്ല ഒരു ആപ്പിൽ കയറാനാണെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുക്കും